ആ ഹലോ ആന്നല്ലോ ആന്നല്ലോ ആ ഇവിടെ സീയുണ്ട് ആ സീബാത്തുണ്ട് നല്ല രീതിയിൽ മസ്സാജ് ചെയ്യുന്നുണ്ട് ഹൈറ്റിങ്ങുണ്ട് ഒരു മാസത്തെ കോഴ്സാണ് ആ അത്രയേ ഉള്ളൂ രണ്ട് നേരമായിട്ടാണ് ചെയ്യുന്നത് ഫുഡുവുണ്ട് ഒരു മാസത്തെ കോഴ്സാണ് കൂടെയാൾ കൂടെയാൾ വേണം ആ രാവിലെയും വൈകീട്ടും ആണ്

എല്ലാം ഒ ഒന്നിച്ചല്ലേ എല്ലാം ആ ഒന്നിച്ചാണ് ആ മാസം അയ്യായിരം രൂപ ഇരുപത് ആ ഇരുപത്തയ്യായിരം രൂപ ഒരുമാസത്തെ ആ ആ ഇല്ല ഇല്ല ഇല്ല ആ ഇല്ല ആ നടുവേദനയ്ക്ക് മസാജ് ചെയ്യുന്നുണ്ട് വണ്ണം കുറയ്ക്കുന്നുണ്ട് ആ മസ് മസാജ് നല്ലവണ്ണം നടുവേദനയ്ക്കുണ്ട് പിന്നെ വണ്ണം കുറച്ച് നല്ല പോലെ തിരുമ്മി ഉടച്ച് മസാജ് ചെയ്യുന്നുണ്ട് ആ ഒരു മാസത്തെ കോഴ്സാ അല്ല ആ ആ വർഷത്തിലൊന്ന് ആ ആ ആ നല്ലതാണ് ആ എക്സ്പീരിയൻസ് ഉള്ളവരാണ്

ഓക്കെ ഓക്കെ ശരി